ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ ആയിരുന്നു ആരായിരുന്നു ആ ഓക്കേ ഓക്കേ അ ഇത് എന്താ ഇത്രയും വൈകിയത് സ്കൂള് തുറന്നിട്ട് കുറച്ച് ദിവസം ആയായിരുന്നല്ലോ ആ ഓക്കേ ഓക്കേ കുഴപ്പമില്ല ഒരു എക്സാം ഉണ്ട് അവർക്ക് എന്താ പറയുക ഇവിടെ കയറണമെങ്കില് ഒരു ചെറിയൊരു എക്സാം ഉണ്ടാകും പക്ഷേ എൽ കെ ജി ക്ക് അങ്ങനെ ഒന്നുമില്ല എൽ കെ ജി ക്ക് നമുക്ക് സ്പോർട്ടായിട്ട് തന്നേ കയറാം കുഴപ്പമില്ല ഡൊണേഷൻ എങ്ങനെ എന്ന് വെച്ചാല് എൽ കെ ജി യിലേക്ക് അമ്പതിനായിരം രൂപയും സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് ഒര് ലക്ഷം രൂപയും ആണ് ഡൊണേഷൻ വരുന്നത് ആ ഡൊണേഷൻ മാത്രം അത്രയും വരും ആ അത് ഇതൊക്കെ എക്സ്ട്രാ പെയ്മെന്റ് ആണ് അതായത് യൂണിഫോം വേണമെങ്കിൽ ഞങ്ങള് ഇവിടന്ന് തയച്ചുതരും പക്ഷേ അതിൻ്റെ എമൗണ്ട് യൂണിഫോമിന് നിങ്ങള് കൊടുക്കേണ്ടി വരും ആ പിന്നെ എൽ കെ ജി യിലേക്കും അതുപോലെ തന്നെ ബുക്ക് ബുക്ക് അതായത് മൂന്ന് പാർട്ട് ആയിട്ടാണ് ബുക്ക് വരുന്നത് ഇപ്പം അവർക്ക് ലഗേജ് തൂക്കികൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആയതുകൊണ്ട് മൂന്ന് പാർട്ട് ആയിട്ടാണ് വരിക അപ്പോൾ അതിന് അനുസരിച്ച് പേയ്മെന്റ് ചെയ്താൽ മതി അത് നിങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം ആ പിന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് സ്കൂൾ ബസ് ഉണ്ട് സ്കൂൾ ബസ് ഒക്കെ നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ വീട് വീട് എവിടെയാണ് അത് നിങ്ങള് ഡൊണേഷൻ തരുന്നിലെ അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് ഞങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് അകത്ത് നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്യുക പിന്നെ ഫുഡ് ആ അതിലെ പോകുന്നുണ്ട് അതിലെ അതിലെ ഒരു നാലിന് ആകുമ്പോഴാണ് വീട്ടിലേക്ക് എത്തുക കേട്ടോ ബസ് ആ ആ ഫുഡ് നിങ്ങള് കൊടുത്ത് വിടണം രാവിലെ രാവിലെ കഴിക്കാൻ ഉള്ളത് ആണെങ്കിലും ഇപ്പോൾ രാവിലെ എട്ട് അരക്ക് ആണ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുക വൈകുന്നേരം നാലര വരെയാണ് ക്ലാസ്സ് ഉണ്ടാകുക ആ ഓക്കേ ഓക്കേ അങ്ങനെയാണ് എങ്കിൽ നാളെ തന്നെ വന്ന് ചേർന്നോളൂ ഇല്ല ഇല്ല ബുദ്ധിമുട്ട് ഒന്നുമില്ല സീറ്റ് ഉണ്ട് ആ ഓക്കേ ആ